കുട്ടികളുടെ സാങ്കേതികവിദ്യ പഠനവും ശാസ്ത്ര പഠനവും എങ്ങനെ വിനോദകരമാക്കാമെന്നും ക്വസ്റ്റ്യൻ വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ് അപ്പം എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളതെന്നു വെച്ചു കഴിഞ്ഞാൽ പഠന രംഗത്ത് ഒരുപാടധികം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ മാറ്റങ്ങളും പുതിയ പുതിയ കണ്ടൻ്റുകളും ഇറങ്ങി വരുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പുതിയ പുതിയ കണ്ടൻ്റുകൾ വരുന്ന ഈ കാലഘട്ടത്തിൽ അവർക്കുള്ള പഠന രീതികൾ വളരെയധികം വിനോദകരമാക്കുന്നത് നല്ലൊരു നല്ലൊരു ആശയം തന്നെയാണ് അവർക്ക് അത് പഠനത്തിൽ മികവ് പുലർത്താനായിട്ട് സാധിക്കും എന്നുള്ളതിനു യാതൊരു തർക്കവും വേണ്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠന രംഗത്ത് പഠന രംഗത്ത് ശാസ്ത്ര പഠന രംഗത്ത് വിനോദകരമായ വിനോദകരമായി അത്രയും അത്രയും ആസ്വദിക്കാൻ പറ്റുന്ന രീതിക്ക് പഠന മേഖലയെ മുന്നോട്ട് കൊണ്ടു പോകാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെയധികം നല്ലൊരു ഓപ്ഷനായി മാറും വിദ്യാർത്ഥികൾ ഒരുപാടധികം വളരും വിദ്യാർത്ഥികൾ സന്തോഷം അതിൽ നിന്ന് കണ്ടെത്തും അതിലൂടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ കൂടുതൽ പഠിക്കുവാൻ ഉള്ള ആഗ്രഹം ഉണ്ടാകും എന്നു വിശ്വസിക്കുന്നു കുട്ടികളുടെ പഠന പഠന പഠനേതര രംഗങ്ങളിൽ വിനോദം വിനോദ കായികമായാലും കാഴ്ചയ്ക്കായാലും പ്രാധാന്യം നൽകി അവർ കൂടുതൽ മികച്ച രീതിയിലേക്ക് ഉയർത്തി കൊണ്ടു വരുവാൻ ഇന്നത്തെ ഇന്നത്തെ പഠനരംഗം സാങ്കേതിക പഠനരംഗം വളരെയധികം സഹായകമാകുന്നുണ്ട് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിർത്തുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യുവാൻ സാധിക്കുകയുള്ളു അതിനായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസമന്ത്രി വീ ശിവംകുട്ടി വളരെയധികം വളരെയധികം എഫേട്ടിടുന്നുണ്ട് എന്നു നമ്മൾ കാണുന്നതാണ് സ്കൂൾ കോളേജ് തലത്തിലായാലും അംഗനവാടി മുതൽ അക്ഷരം പഠിക്കുമ്പോൾ മുതൽ അവർ പഠിച്ച് നല്ലൊരു നിലയിലെത്തുന്നതു വരെ അവർ വിദ്യാർത്ഥികൾ തന്നെയാണ് കുട്ടികൾ തന്നെയാണ് അവരെ അവരുടെ ആ കാലഘട്ടം വളരെ എൻജോയ്മെൻ്റുകളിൽ കൂടി സഹായകമാകുന്ന എൻജോയ്മെൻ്റുകൾ അവരെ വളരെയധികം സഹായിക്കുന്നതാണ് അവർക്ക് പുതിയ പുതിയ നിലകളിലേക്ക് എത്തുവാൻ വളരെയധികം സഹായിക്കുന്നതാണ് എന്നു വിശ്വസിക്കുന്നു പുതുതലമുറയിലെ കുട്ടികൾ ഇന്ന് സ്മാർട്ട് ഫോൺ അത്തരം മേഖലകളിൽ അഡിക്റ്റാണ് എന്നാൽ പഴയ കാലകുട്ടികൾ വിനോദപരമായാലും ഒരുപാടവർ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരി ഒരു കാര്യം തന്നെയാണ് പഴയ കുട്ടികൾ വളരെയധികം ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരുന്നത് കൊണ്ടു തന്നെ അവർക്ക് ശാരീരികമായാലും മാനസികമായാലും വളരെയധികം സന്തോഷം ലഭിച്ചിരുന്നു അന്നത്തെ കാലത്ത് എന്നാൽ ഇന്നത്തെ കാലത്ത് അതു വളരെയധികം കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത് സ്മാർട്ട് ഫോൺ അഡിക്റ്റാകുന്നതിലൂടെ കുട്ടികളെല്ലാം തന്നെ മറക്കുന്നു അവർ സംസാരിക്കാൻ മറക്കുന്നു ഒന്നു ചിരിക്കുവാൻ മറക്കുന്നു എന്തിന് വീട്ടിൽ പോലും പ്രശ്നങ്ങൾ മാത്രമാണ് അപ്പം അതിൽ നിന്നെല്ലാം ഒരുപാട് മാറേണ്ടതുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ പഠനം ശാസ്ത്ര പഠനം വിനോദകരമാക്കുന്നതിലൂടെ ഒരുപാടധികം ആക്ടിവിറ്റീസ് സ്കൂളുകളിൽ ഏർപ്പെടുത്തുന്നതിലൂടെ എങ്ങനെ വിനോദകരമാക്കാം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ലഭിക്കുന്നതാണ്